ആ ഹലോ ആ ഞാനൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടീട്ടായിരുന്നു വിളിച്ചത്

സീറോ ബാലൻസ് മതി

അതെന്തിനാ ഇടുന്നേ ആണോ അപ്പം ഇൻവെസ്റ്റ്മെൻറ്റിന്റെ അക്കൗണ്ടിന്റെ കാശ് പോവില്ലേ അതോ

എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് അതെ എത്ര എന്തൊക്കെ സാധനങ്ങൾ വേണം

അത് ആ ഓക്കെ ഓക്കെ അപ്പം മിനിമം ബാലൻസ് എത്രയാ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കാണിക്കണമല്ലോ

ആ ആ ശരി ശരി മനസ്സിലായി ആ ഓക്കെ ഓക്കെ ആ